അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി നാന്നൂറ്റി നാൽപത്തി അഞ്ച് ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നാല് ലക്ഷത്തി എഴുവത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് ഒൻപത് ലക്ഷത്തി എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ്